ആ ഞാന് ആസ്വദിക്കാറുണ്ട് നമ്മുടെ അവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും നാട്ടിലാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവുമ്പോൾ നമ്മളെ എല്ലാവരെയും ഭക്ഷണം കഴിക്കാന് വിളിക്കലുണ്ട് ഇപ്പോൾ കല്യാണം ആണെന്നുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞ് അവിടെ നവ വധു വരന്മാരെ നമ്മൾ ക്ഷണിക്കും ഭക്ഷണം കഴിക്കാന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടാക്കും പിന്നെ ഇവിടെ വീടിന്റെ അടുത്ത് രണ്ട് അമ്പലമുണ്ട് ഒന്ന് ശിവക്ഷേത്രമാണ് ഒന്ന് ഭഗവതി ക്ഷേത്രമാണ് അത് അവിടെ പൂജയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു നാലഞ്ചു ദിവസത്തെ പരിപാടിന്നെയിരിക്കും അപ്പോ അവിടെ ഭക്ഷണം കഴിക്കാന് എല്ലാരും വെരും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഒരു നാല് അഞ്ചു ദിവസം ഭയങ്കര വലിയ പരിപാടിയായിരിക്കും പിന്നെ ഓണം വിഷു എല്ലാ കാര്യങ്ങളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യലുണ്ട് അപ്പോൾ ഭക്ഷണവും കഴിക്കാൻ ഫ്രണ്ട്സിനെ വിളിക്കും ഓണത്തിനാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കും ഇപ്പോൾ പെരുന്നാള് കാര്യങ്ങൾ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളവിടെ പോയി ഫുഡ് കഴിക്കും അവർക്ക് നമ്മുടെ ഭക്ഷണ രീതികൾള് ഭയങ്കര ഇഷ്ട്ടമായിരിക്കും നമ്മൾ എന്താണ് ചിലര്ക്ക് സദ്യ ആയിരിക്കും ഇഷ്ടമുണ്ടാവുക ചിലര്ക്ക് ബിരിയാണി കാര്യങ്ങളൊക്കെയായിരിക്കും ഇഷ്ടമുണ്ടായിരിക്കുക ഇനി അമ്പലത്തിത്തെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വികാരമാണ് പായസവും ചോറും കറികളും എല്ലാം കൂടെ എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ അമ്പലത്തിലാണെന്നുണ്ടെങ്കിലും സമൂഹ സദ്യയായിട്ടുണ്ടാവലുണ്ട് അപ്പോൾ അവിടെ എല്ലാ മതക്കാരും വരും ആര്ക്കും ഭക്ഷണം കഴിക്കാം അങ്ങനെ പരിപാടിയായിട്ട് തന്നെ ഉണ്ടാകലുണ്ട് നമ്മൾ മത സൗഹൃതം അവിടെ നോക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ കല്യാണങ്ങളാണ് എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു കല്യാണം കൊണ്ടു ഉദ്ദേശിക്കുന്നത് നാലെ ആളെ കൂട്ടി ഭക്ഷണം കൊടുക്കാനാണല്ലോ അതൊക്കെ ചെയ്യാറുണ്ട്